സാങ്കേതികവിദ്യ എളുപ്പമാക്കിയതെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഹോട്ടലുകളിലൊക്കെ വിളിച്ച് ബുക്ക് ചെയ്യുന്നതിന് പകരം നമുക്ക് ഇപ്പോൾ ആപ്പ് വഴി നമുക്ക് ബുക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ആപ്പ് വഴി നമുക്ക് കിട്ടും നമുക്ക് എന്തെങ്കിലും വൗച്ചർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗൂഗിൾ പേയിലേക്ക് നേരിട്ട് നമുക്ക് ട്രാൻസ്ഫർ ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ് പിന്നെ എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഷോപ്പിംഗ് ഓക്കെ ചെയ്യണമെങ്കിൽ നമ്മളെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിലും നമുക്ക് നേരെ എന്ത്ചെയ്യാം നമ്മുടെ എ ടി എം കൊണ്ടു കൊടുത്തുകഴിഞ്ഞാൽ എ ടി എം വഴി നമുക്ക് നമുക്ക് പണം അതിനകത്തേക്ക് ആഡ് ചെയ്യാനും ഇതാക്കാനും എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് നല്ലതാണ് അപ്പം പിന്നെ എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ എളുപ്പമാക്കിയതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് ഉപയോഗം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാനും എല്ലാ കാര്യങ്ങൾക്കും ഇത് നല്ലതാണ് ഇപ്പോൾ നമുക്ക് ഓൺലൈൻ ഇതാണ് ചെയ്യുന്നത് അതായത് ഓൺലൈൻ ആയിട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ട് നമ്മൾ ഓരോ സാധനങ്ങൾ മൊബൈൽ ഫോൺ ആണെങ്കിലും നമുക്ക് ബാഗ് ആണെങ്കിലും ഡ്രസ്സ് ആണെങ്കിലും എ ടു സെഡ് സാധനം നമുക്ക് ഓൺലൈനിൽ സാ വാങ്ങാൻ കിട്ടും അപ്പോൾ അതൊക്കെ ഒരു മെച്ചപ്പെട്ട ആയ രീതിയിലാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് പിന്നെ എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്കിപ്പം എന്തെങ്കിലും ഇപ്പം ഒരാൾക്ക് പൈസ അയച്ച് കൊടുക്കണമെങ്കിൽ ഇപ്പോൾ നമ്മൾ അയയ്ക്കുന്ന ആളിപ്പോൾ ദൂരെയാണ് അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ എങ്ങനെ ആണെന്ന് വെച്ചുകഴിഞ്ഞാൽ വണ്ടിയിൽ ഇപ്പോൾ കൊടുത്തുവിടുവോ അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് പോയിട്ട് കൊടുക്കേണ്ട ആവശ്യ അവസ്ഥയാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ എങ്ങനെ ആണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് തന്നെ നമ്മുടെ മൊബൈൽ വഴി തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് ഗൂഗിൾ പേ വഴി അയച്ച് കൊടുക്കാം ഇപ്പോൾ അമ്പതിനായിരം രൂപയാണെങ്കിൽ അമ്പതിനായിരം രൂപ നമുക്ക് ഗൂഗിൾ പേ വഴി അയച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതൊക്കെയൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്